രണ്ടായിരത്തി അഞ്ഞുറ്റി മുപ്പത്തി മൂന്ന് മുപ്പത്തിയെട്ടായിരത്തി അറുനൂറ്റി ഏഴുപത്തി ഒന്ന് രണ്ടു ലക്ഷത്തി അൻപത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് ഒരുലക്ഷത്തി ആറുപത്തി മൂവായിരത്തി നാനൂറ്റി ഏഴുപത്തി നാല്